നമ്മുടെ പ്രദേശത്തെ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകൾ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മറ്റ് നഗരങ്ങളിൽ സ്കൂള വെച്ച് നോക്കുമ്പോൾ ഒന്നിനും വ്യത്യാസമില്ല രണ്ടും ഏകദേശം ഒരേ പോലെ തന്നെയാണ് പിന്നെ ഒന്നുകൂടി പഠിപ്പും പഠിക്കാനുള്ള കഴിവും എന്താണ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ തന്നെയാണ് നഗരങ്ങളിലൊക്കെ പോകുന്നവർക്ക് എന്താണ് ഒരുപാട് പൈസയാവുകയും പിന്നെ അതിനെ പറ്റാത്തൊരു പറ്റാത്ത രീതിയിലായിരിക്കും ചില അദ്ധ്യാപകരൊക്കെ എന്താണ് പൈസയുള്ളവരെ മാത്രം പഠിപ്പിക്കുകയും പഠിപ്പിക്കുക എന്താണ് പൈസയില്ലാത്തവരെ താഴ്ത്തി കെട്ടുകയൊക്കെ ചെയ്യും സർക്കാർ സ്കൂളുകളിൽ ആണെങ്കിലും പലയിടത്തും അങ്ങനെ കണ്ടു വരുന്നുണ്ട് ഇത് എന്താണ് എന്താണ് സ്വകാര്യ സ്കൂളുകളൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റൊക്കെ സർക്കാർ സ്കൂളുകളിലുണ്ട് സർക്കാർ സ്കൂളുകൾ എന്താണ് കൂടുതൽ ഇപ്പം എട്ടാം ക്ലാസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് പാല് മുട്ട പിന്നെ സ്കൂളിലെ ഭക്ഷണം ഒക്കെ നൽകിയിട്ട് ഉള്ള നല്ല സഹായങ്ങളൊക്കെ സർക്കാരുടെ വക ഉണ്ട് അതുവഴി പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരമാണ് പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിൽ തീരെ വിദ്യാഭ്യാസം നല്ല ഉള്ളവരും പിന്നെ അതിന് ആവശ്യം ആവശ്യമായ ഫണ്ട് കയ്യിലില്ലാത്തവർക്ക് ഒക്കെ എന്താണ് സർക്കാർ സ്കൂളുകൾ ഏറെ സഹായകമാണ് സർക്കാർ സ്കൂള ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ളവർക്ക് ഒക്കെ കൂടുതൽ ഉന്നതമായി പഠനം എന്താണ് പഠിക്കാനും പിന്നെ മറ്റ് ജോലികളിൽ കഴിവുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പിന്നെ ജോലിയിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരമാണ് പിന്നെ സ്വകാര്യ സ്കൂളുകളിലും എന്താണ് സ്വകാര്യ സ്കൂളുകളിൽ എന്താണ് പൈസ കൊടുക്കണ്ട എങ്കിൽ കൊടുക്കണമെങ്കിലും എന്താണ് പഠിപ്പ് അത്യാവശ്യം ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് പക്ഷേ ചിലവർ ആണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട് വലിയ കൊടുത്താലും എന്താണ് സ്റ്റുഡൻസ് പൈസ കൊടുത്താലും കൂടുതൽ എന്താണ് അവരെ എന്താണ് ശ്രദ്ധിക്കാതെ എന്ത് പെട്ടെന്ന് ടോപ്പിക്കളൊക്കെ തീർക്കുന്ന സ്കൂളുകളും ഉണ്ട് നഗരങ്ങളിൽ നഗരങ്ങളിലും നമ്മളുടെ നാട്ടിലങ് വെച്ച് പ്രദേശത്തെ സ്കൂളുകളൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലായിതും ഏകദേശം ഒരേ പോലെ തന്നെയാണ് പഠിപ്പും മറ്റ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അതുമായിട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല പ്രദേശത്തെ സ്കൂളുകൾ തന്നെ കൂടുതൽ ഇഷ്ടം